ഹലോ കസ്റ്റമർ കെയറല്ലേ ഞാൻ വിളിച്ചതേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീചാർജ് ചെയ്തിരുന്നു ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുടെ പക്ഷേ അത് പ്രോസസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് കൺഫോം മെസ്സേജൊന്നും വന്നിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നത് അതിൻ്റെ സ്റ്റാറ്റസൊന്നു പറഞ്ഞു തരാമോ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതായിരുന്നേ ചെയ്തതേ ഗൂഗിൾ പേയിലാണ് ചെയ്തത് ആ മൊബൈൽ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത് അറുപത്തേഴ് പൂജ്യം രണ്ട് അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുമോ കാരണം എനിക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് റീചാർജ് മെസ്സേജൊന്നും വന്നിട്ടില്ല റീചാർജ് സക്സസ്ഫുള്ളെന്നു കാണിക്കുന്നില്ല ഒന്നു പറഞ്ഞു തരാമോ